നമുക്ക് വളരെ സമ്പന്നമായൊരു സാംസ്ക്കാരിക പൈതൃകം ഉണ്ട് നമ്മൾ അതിൽ പ്രധാനമായും നമ്മുടെ ഭാഷ ഒരു വലിയ പങ്കാണ് വഹിക്കുന്നത് മലയാള ഭാഷ അതിന് ഒരുപാട് മഹാകവികളും നോവല് നോവലിസ്റ്റ് ഒരുപാട് മലയാളഭാഷയുടെ മലയാള ഭാഷയെ സമ്പന്നമാക്കാനായിട്ടുള്ള ഒരുപാട് കവികൾ മഹാകവി കുമാരനാശാൻ കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ പിന്നെ ആശാൻ്റെ കവിതകൾ ഉള്ളൂർ വള്ളത്തോൾ അങ്ങനെയൊക്കെയുള്ള മഹാപ്രതിഭാശാലികളായ കവികൾ നമ്മുടെ ഭാഷ ഏഹ് ഉന്നതയിൽ എത്തിക്കുതിനായിട്ട് ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട് അതുപോലെതന്നെ നമ്മുടെ മലയാള ഭാഷയിപ്പോൾ ശ്രേഷ്ഠഭാഷയായിട്ട് സർക്കാർ കേന്ദ്ര ഗവൺമെൻ്റ് അംഗീകരിച്ചിരിക്കിയാണ് നമ്മുടെ ഇപ്പോൾ കോടതികളിലായാലും ഏത് എല്ലാ നമ്മുടെ ഈ ഗവൺമെൻ്റ് ഓഫീസുകളിലും മലയാള ഭാഷ ആണ് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മുടെ സിനിമ മലയാള സിനിമ മേഖല അതുപോലെതന്നെ മറ്റ് കലാ സാംസ്ക്കാരിക മേളകൾ ഇതെല്ലം നമ്മുടെ മലയാളഭാഷ വളരെ സംസ്ക്കാര സമ്പന്നമാണ് അതായത് മിമിക്രി ആയാലും കഥാപ്രസംഗം നാടകം പിന്നെ ചാക്യാർകൂത്ത് ഓട്ടംതുള്ളൽ ഏഹ് എന്നൊക്കെയുള്ള ഒരുപാട് കലാ സാംസ്കാരികം പൈതൃകം നമ്മുടെ ഭാഷയിലാണ് ഇതെല്ലാം അവതരിപ്പിക്കുന്നത് മലയാള സിനിമയുണ്ട് നാടകമുണ്ട് ഈ ഓട്ടംതുള്ളൽ അങ്ങനെ ഒരുപാട് കലാപരമായിട്ടുള്ള സമ്പന്നത നമ്മുടെ ഭാഷ സമ്പന്നതയ്ക്ക് നമ്മുടെ ഭാഷ വലിയ പങ്കാണ് വഹിച്ചിരിക്കുന്നത് നമ്മുടെ ഭാഷ ശ്രേഷ്ഠ ഭാഷയാണ് അവിടെ വള്ളംകളി അതിനുപയോഗിക്കുന്ന വഞ്ചിപ്പാട്ടുകൾ കുചേല വൃത്തം വഞ്ചിപ്പാട്ട് ആണ് നമ്മൾ സാധാരണ ഗതിയിൽ എല്ലാ വള്ളംകളി ടീമുകളും വള്ളംകളിയുടെ സമയത്ത് ഉപയോഗിക്കുന്ന പാട്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മാതൃഭാഷയാണ് മലയാളം ആ മലയാളഭാഷ എല്ലാവരുടെയും ജീവൻ്റെ ജീവനാണ് നമ്മുടെ നാഡീയിടുപ്പ് മലയാള ഭാഷയുടേതാണ് മലയാളം മലയാളമാണ് നമ്മുടെ ഭാഷ അമ്മയുടെ ഭാഷയാണ് മലയാളം മലയാളം ശ്രേഷ്ഠഭാഷ ആയതുകൊണ്ടുതന്നെ നമുക്ക് ഒത്തിരി അഭിമാനിക്കാവുന്നതാണ് നമ്മളുടെ സാംസ്ക്കാരിക പൈതൃകം സംരക്ഷിക്കുവാൻ നമ്മുടെ ഭാഷ നമുക്കൊരു വലിയ പരിധിവരെ സഹായകരമായിട്ടുണ്ട്